കേരളത്തിലെ ജനങ്ങൾക്കായി നമ്മളുടെ സർക്കാർ ഒരുപാടധികം പദ്ധതികളും പരി പ്രോഗ്രാമുകളും സ്കീമുകളും ഇപ്പോൾ കേരളത്തിൽ പ്രാബല്യമാക്കിയിട്ടുണ്ട് അതിൽ ഒന്നാണ് മംഗല്യ പദ്ധതി ഈ പദ്ധതിയിൽ ഭർത്താവ് ഉപേഷിച്ചതോ അല്ലെങ്കിൽ മരിച്ചുപോയതായിട്ടുള്ള യുവതികളുടെ എണ്ണമെടുത്ത് അവരെ പാവപെട്ട അവരെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന രീതിക്ക് ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കുകയും അവരെ പു പുനർവിവാഹം ചെയ്യാനായിട്ടവരെ സഹായിക്കുകയും ചെയുന്ന ഒരു സ്കീമാണ് മംഗല്യ പദ്ധതി എന്നുപറയുന്ന പദ്ധതി അതേപോലെ ഒട്ടധികം പദ്ധതികളും പ്രോഗ്രാമുകളും കേരളത്തിലെ ജനങ്ങൾക്കായി അവരെ ജീവിതം മെച്ചപ്പെടാനും എളുപ്പമാകാനും നമ്മടെ ഗവൺമെൻട് ഇമ്പ്ലിമെൻട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊന്ന് ഇതേപോലെ ഒരുപാധികം ഉണ്ട് അതേപോലെതന്നെ പാവപെട്ട വീട്ടിലെ പിള്ളേർക്ക് ഫീസ്സ് കൊടുക്കാതെ പഠിക്കാനായിട്ട് ഗവൺമെൻട് സ്കൂളുകളും കോളേജുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെത്തന്നെ ഗവൺമെൻട് സ്കൂളിലെ പിള്ളേരുടെ ഇമ്യൂണിറ്റി അവരുടെ ആരോഗ്യ ഷേയ് ആരോഗ്യം നന്നാക്കാൻ വേണ്ടി അവർക്ക് പാലും മുട്ടയും എന്നീവിധ ന്യൂട്ട്റിയൻസ്സും മിനറൽസ്സും അടങ്ങിയ ഫുഡ്ഡുകൾ സ്കൂളിൽ നിന്നു തന്നെ ഫ്രീ ആയി പ്രൊവൈഡ് ചെയുന്ന സ്കീമുകളും ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട് അതേപോലെതന്നെ ഭർത്താവ് മരിച്ചുപോയ യുവതികൾക്ക് ജോലിയും അതേപോലെ തന്നെ അവർക്ക് അസിസ്റ്റൻസ്സും ഹെൽപ്പും കൊടുക്കാനായിട്ടുള്ള പല അധികം ഒട്ടധികം സ്കീംസുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് അതേപോലെ തന്നെ പാവപ്പെട്ടവർക്ക് റേഷനറിയും അതിൻ്റെ കൂടെത്തന്നെ അവർക്ക് ചെറിയ ചെറിയ പൈസയിൽ ഫുഡ് ഐറ്റംസ് വാങ്ങാനായിട്ട് റേഷൻ കാഡിൽ പ്രത്യേക റേഷൻ കാഡുകൾ ഇറക്കുകയും ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വയസ്സായ ആൾക്കാർക്ക് മാസത്തിൽ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്കീമും കൂടി ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട് അതേപോലെ ഒട്ടധികം സ്കീമുകളും പരിപാടികളും ഇപ്പോൾ കേരളത്തിൽ ഇമ്പ്ലിമെൻ്റ് ആകുന്നുണ്ട് ഇനി വരാനും കിടക്കുന്നുണ്ട്